ഹലോ ഹലോ ആ ആ നമുക്ക് ആണെങ്കിലും ഫുഡിൻ്റെ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ ആ അപ്പം നമ്മൾ ഈ ഫിഷ് കറിക്ക് പ്രിപ്പെയർ ചെയ്യുന്ന മീൻ ഏതാണ് നമുക്ക് നെമ്മീൻ മതിയായിരുന്നേ ആ നെമ്മീനിൻ്റെ മതി തേങ്ങ അരച്ചതാണോ മുളകിട്ട കറിയോ അപ്പം നമുക്ക് മീൻ കറി വേണമായിരുന്നു പിന്നെ ടൈഗർ പ്രോ പ്രോൺസ് ഇല്ലേ അതിൻ്റെ റോസ്റ്റ് ആ അത് വിട്ടേക്കില്ല ആ പിന്നെ മീൻ പൊള്ളിച്ചത് വേണമായിരുന്നു അതേതാണ് കരിമീനാണോ അതിൻ്റെ റേറ്റ് എത്രയാവും കരിമീനും നെമ്മീനും ആ എല്ലാം ഫ്രഷ് ആണോ ആ പിന്നെ കഴിക്കാൻ അപ്പമൊക്കെ ആയിട്ട് എന്താണ് ഉള്ളത് കപ്പ ഒക്കെ ഉണ്ടോ കപ്പ കുഴച്ചതൊക്കെ അപ്പം നമുക്ക് വേണ്ടത് ഫിഷ് കറി പിന്നെ കരിമീൻ പൊള്ളിച്ചത് പിന്നെ പ്രോൺസിൻ്റെ റോസ്റ്റ് പിന്നെ ഈ കപ്പ കുഴച്ചത് അപ്പം ആയിട്ട് എന്തുണ്ട് കള്ളപ്പം പോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ വെറൈറ്റി നമുക്ക് കള്ളപ്പം മതിയായിരുന്നു ആ ഇതിൻ്റെ റേറ്റ് ഒന്ന് അറിയണമായിരുന്നേ ആ പിന്നെ ഞാനൊരു അഞ്ച് മണി ആകുമ്പോൾ വരാം ആ ഓക്കെ ഓക്കെ ശരി എന്നാൽ താങ്ക് യു അല്ല അല്ല വന്ന് കഴിക്കാനാണ് ആ ഓക്കെ ആ ഓക്കെ ശരി താങ്ക് യു